എന്റെ ജന്മ നാടെന്ന് പറയുന്നത് തോണി മാനന്തവാടി തോണിച്ചാലെന്ന് പറയുന്ന ഒരു അഗ്രഹാരത്തിനടുത്താണ് ഞാൻ ജീവി ജീവിക്കുന്നത് എന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെത്തന്നെയാണ് ജനിച്ച് വളർന്ന് കളിച്ചതും എല്ലാം ഈ ഈ ഈ മണ്ണിൽ തന്നെയാണ് അതുകൊണ്ട് എനിക്കേറ്റവും ഇഷ്ടമാണ് ഞങ്ങളുടെ നാട് ഇവിടെ എന്തുകൊണ്ടും നല്ല നല്ല സ്ഥിതിയുള്ള സ്ഥലമാണ് നല്ല കാലാവസ്ഥയും നല്ല എന്തുകൊണ്ടും ജീവിക്കാൻ സുഖമായ സ്ഥലമാണ് അതുകൊണ്ട് ഏറ്റവും ഇഷ്ടമാണ് ഈ ഞങ്ങളുടെ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലം പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെത്തന്നെയാണ് ഞങ്ങള് കുറേ കുറേ വർഷമായി പത്തു അൻപത് അൻപത് അറുപത് വർഷത്തിലേറെയായി ഈ വയനാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് മാനന്തവാടി എന്ന് പറയുന്ന തോണിച്ചാലെന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി പോകാനൊന്നും താത്പര്യമില്ല ഇവിടെയാണ് ഏറ്റവും ഇഷ്ടപെട്ട സ്ഥലം ഞങ്ങളുടെ ഇവിടെ ബ്രാഹ്മിൺസിന്റെ അഗ്രഹാരം എന്നു പറയുന്ന സ്ഥലമൊക്കെയുണ്ട് അതൊക്കെ നല്ലൊരു കാണാൻ തന്നെ ഒരു പ്രകൃതി മനോഹരമായ സ്ഥലമാണ് അതുകൊണ്ടിവിടുന്നു വിട്ടുപോകാൻ ഞങ്ങൾക്ക് താത്പര്യമില്ല ഇവിടെത്തന്നെയാണ് ജനിച്ച് വളർന്നത് അതുകൊണ്ടിവിടെ തന്നെ ഭയങ്കര കാര്യമാണ്